നമ്മുടെ ഇവിടെ മത്സ്യബന്ധനത്തിന് അല്ലാതെ മിക്കവാറും നമ്മൾ പോകാറുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വല വീശി വല വീശി വൈകുന്നേരം വീശി വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ അത്യാവശ്യ കറികൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതാണ് അവിടെ നമുക്ക് അത് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ പിള്ളേരും കൂട്ട് മക്കളും എല്ലാരും കൂടെ കൂടി ഭക്ഷിച്ചു നമ്മൾ തൃപ്തരായി കിടന്നുറങ്ങുന്ന വൈകുന്നേരങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇത് നമുക്ക് ഒരു സാമ്പത്തിക ലാഭവും എങ്കിൽ പിന്നെ ഒരു ഊർജ്ജവും പകരുന്നത് എല്ലാവരും ഒരുമിച്ചു ഭക്ഷിക്കുകയും ഒന്നിച്ചു ഇപ്പോൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ മീൻ പിടിച്ചു കൊണ്ടു വരുന്നു അപ്പം നമ്മുടെ അല്ലെങ്കിൽ മമ്മ അത് വെട്ടി വൃത്തിയാക്കി കറിവയ്ക്കുന്നു മക്കൾ എല്ലാവരും കൂടെ ഭക്ഷിക്കുന്നു ഒരു നമുക്ക് നല്ലൊരു മാനസികമായി ചിലപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഐക്യത്തിന് കാരണമാകുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ചു മുന്നോട്ടു പോകുന്നു ഇതിൻ്റെ മേഖലയുമായിട്ട് വന്നാണ് മെന്നെ ഈ മത്സ്യബന്ധനത്തിന് ഇപ്പം മെയിനായിട്ട് പോകുന്ന ആൾക്കാരും കടലുകളിൽ കടലിൽ വള്ളത്തിലൊക്കെ പോകുമ്പോൾ പാട്ട് പാടാറ് പാടാറുണ്ടായിട്ട് അറിവുണ്ട് അതിനെ പാട്ടിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കടലിൽ വല വലിച്ചു കയറ്റുമ്പോഴും ഒക്കെ എല്ലാവരും കൂടെ പാടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സാധിക്കുന്നുണ്ട് അതൊരു അത് അവരുടെ ഒരു ക്ഷീണത്തെ മാറ്റുവാനും അവരെല്ലാം ഒന്നിച്ചു പ്രവർത്തിക്കുവാനും ഒന്നിച്ചു മുന്നോട്ടു പോകുന്നത് കാണുവാനായിട്ട് കടൽ കടൽ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒരു വിധം കാണുന്നുണ്ട് ഇനി നമ്മുടെ ഉൾനാടൻ മത്സ്യബന്ധന മേഖലകളിൽ അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ മീൻ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട് അവിടെ നമ്മൾ മത്സ്യബന്ധനം പിടിക്കുന്ന അവർ കൃഷി ചെയ്യുന്നു അവർ പിടിക്കുന്നു അങ്ങനെയും മുന്നോട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ മത്സ്യബന്ധനം പിടിക്കുന്ന ദിവസം ഒരു ആഘോഷമാക്കി മാറ്റുന്നതായിട്ടും കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് മീൻ പിടുത്തവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയുവാൻ സാധിക്കുന്നത് കുട്ടനാടൻ മേഖലകളിൽ കൃഷി കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് മീൻ അവിടെ പിടിക്കുന്ന ദിവസം ഒരു ആഘോഷമായിട്ടാണ് കാണാനാണ് മെയിൻ അധികാരികളെ വിളിച്ചു ഉദ്ഘാടനം ചെയ്യുക മെയിനായിട്ട് അങ്ങനെ കാണാറൊക്കെ ഉണ്ട് ഉദ്ഘാടനം നടത്തുമ്പോൾ എല്ലാവരും ഉദ്ഘാടനം മേഖലകളിലും കാണാറുണ്ട് മെയിനായിട്ട് പാട്ടും ആഘോഷങ്ങളുമൊക്കെ കാണുന്നത് കടൽ മേഖളകളിലാണ് എന്ന് ഞാൻ മനസിലാക്കുന്നത് ഇതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എൻ്റെ അറിവ്